ഇപ്പം ഡ്രിങ്ക്സൊക്കെ ഉണ്ടാക്കുവാണേൽ നമ്മള് ലൈമ് ഉണ്ടാക്കാറുണ്ട് അപ്പം ലൈമ് ഉണ്ടാക്കുമ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് അവിടെത്തന്നെ നാരങ്ങാവെള്ളം ഉണ്ട് തന്നെ ഇപ്പം ചിലപ്പം മധുരം ഇട്ടിട്ടായിരിക്കും ചെലപ്പം ഉപ്പ് ഉപ്പിട്ടിട്ടായിരിക്കും ചിലപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് മധുരവും ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മള് മുളകൊക്കെ ഇതാക്കി ഇടുമ്പം നല്ല ടേസ്റ്റാണ് അങ്ങനെ പിന്നെ നമ്മള് ഉണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഈ മാമ്പഴക്കാല സീസണൊക്കെ ആകുമ്പം മാമ്പഴത്തിൻ്റെ ജ്യൂസ് ഉണ്ടാക്കാറുണ്ട് അതുപോൽതന്നെ നമ്മള് പൈനാപ്പിളൊക്കെ മേടിച്ചു വരുന്നാ പൈനാപ്പിള് അങ്ങനെ പിന്നെ വീട്ടിലൊന്ന് ട്രൈ ചെയ്തത് പച്ചമാങ്ങ ജ്യൂസ് അയിനാത്ത് നമ്മള് ഇഞ്ചിയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് ഇട്ടിട്ട് ഉ മധുരമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഫ്രാഷൻ ഫൂട്ടിൻ്റെ ജ്യൂസ് അടിക്കാറുണ്ട് ഇതൊക്കെയാണ് വീട്ടിലുണ്ടാക്കാറ് പിന്നേ നോർമലായിട്ടുള്ളത് കരിക്കിൻ്റെ കരിക്ക് ഷെയ്ക്ക് അടിക്കാറുണ്ട് അതുപോൽതന്നെ ഷാർജ ഷെയ്ക്ക് അടിക്കാറുണ്ട് അപ്പം നമ്മള് കടയിൽ നിന്ന് പഴം മേടിക്കും അപ്പം ഷാർജ ഉണ്ടാക്കുമ്പം പഴം മേടിക്കും പിന്നെ ബൂസ്റ്റ് മേടിക്കും ബാക്കി ഇവിടെത്തന്നെ പാല് ഇവിടെത്തന്നെ ഉണ്ടാവും പാല് ഫ്രീസറിൽ എത്തിച്ച് കട്ടയാക്കിയിട്ട് നമ്മള് അടിക്കാണ് ചെയ്യാറ് എന്ന് വെച്ചാല് നമ്മള് കടയില് ആവുന്നപ്പോലെ ആകുവൊന്ന് ചോയിച്ച് കഴിഞ്ഞാല് ഏകദേശം അതുപോലെതന്നെ ഒക്കെയൊരു കൺസിസ്റ്റൻസില് നമുക്ക് കിട്ടും നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാം കഴിക്കാൻ അപ്പം നമ്മള് ബൂസ്റ്റ് കൂടെ ചേർക്കുന്നോണ്ട് ഒരു കടയുടെ ടച്ച് കിട്ടാറുണ്ട്